ആ ആരായിരുന്നു ആ ആ ബ്രോക്കറാണ് ആ ആ നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് വീട് ആ ആ കാശ് ആ അല്ല കടയോ ഒരു ഒരു മുറിയാണോ ഉദ്ദേശിക്കുന്നത് ആ താമസിക്കാനുള്ള സൗകര്യം കൂടെ ഉള്ളത് എന്ന് വേണോ ആ ഉൾപ്പെടെ ഇത് ഇത്തിരി ഉള്ളിലോട്ടാണെങ്കിൽ കുഴപ്പം ഉണ്ടോ ആ റോഡ് സൈഡിൽ ഇല്ല നിങ്ങൾ ഏത് ഭാഗത്താണ് ഉദ്ദേശിക്കുന്നത് സ്ഥലം ആ പണിക്കൻകുടി ഭാഗത്ത് മ് പണികുടി ഭാഗത്ത് വീട് കിടപ്പുണ്ട് പക്ഷെ വാടക ഇച്ചിരി കൂടുതലാണ് സെക്യൂരിറ്റി പൈസയും കൊടുക്കണം വാടക ഒരു മാസം ഇരുപത്തി അഞ്ച് രൂപയാവും

അല്ല അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവർ ആൾക്കാരെ എടുത്തുകൊണ്ടിരിന്നപ്പോഴും ആ വിലക്കൊക്കെ തന്നെ എടുത്തു കൊണ്ടിരുന്നത്

ഹ്മ് മ്മ് അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നു കാണാം എപ്പോഴാണെങ്കിലും കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ബാക്കി തീരുമാനിക്കാം ആ എല്ലാ സൗകര്യം ഉണ്ട് വെള്ളം കരണ്ട് ഉണ്ട് കരണ്ട് ഉണ്ട് ആ എല്ലാ സൗകര്യം ഉണ്ട് ആ ആ മെയിൻ റോഡ് സൈഡ് ഇത്തിരി ഉള്ളിലോണ്ട്ടാ അത് ഞാൻ ഒത്തിരി ഇല്ല എന്നാലും വണ്ടിയൊക്ക ചെല്ലുന്ന ഇടമാണ്

ആ ഉണ്ട് ഉണ്ട് മ് അത് വീടും കടയും കൂടെ മൊത്തമായിട്ട് എടുക്കാനാണോ

ആ നിങ്ങൾ വന്നു കാണുക കണ്ടിട്ടല്ലേ ബാക്കി ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര വർഷത്തേക്കാണ് ആണോ ആ അഞ്ച് വർഷത്തേക്കാണെങ്കിൽ നമുക്ക് ഇച്ചിരിയൊക്ക കുറച്ചു ചെയ്യാം ഇച്ചിരിയൊക്ക കുറയ്ക്കാം നിങ്ങൾ വന്നു കാണുക വന്നു കണ്ടിട്ടല്ലേ തീരുമാനിക്കുന്നത് നിങ്ങളേ വന്നു കാണുക വന്നു മ് ആ ഞാൻ ആ ഞങ്ങൾ ഇവിടെ എന്നും ഉണ്ട് ആ നിങ്ങൾ വരുമ്പോൾ ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതി അപ്പം സൗകര്യം അനുസരിച്ചു വിളിച്ചിട്ട് വന്നു കണ്ടു കഴിഞ്ഞിട്ട് കുറയ്ക്കാവുന്നതാണെങ്കിൽ കുറയ്ക്കാം

മ് നിങ്ങൾ എത്ര പേരു ഉള്ളത് വീട്ടിൽ കുടുംബ താമസമാണോ ആ ആ അപ്പം എന്നാ വല്ലതും പറഞ്ഞത് തന്നെ വേണം കാർണെച്ചാ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യങ്ങളും കരണ്ടും എല്ലാം കൂടുതൽ വേണമല്ലോ ആ അപ്പം പിന്നെ ഒത്തിരി തുകയൊന്നും കുറയ്ക്കാൻ പറ്റില്ലായിരിക്കും

ആ ഇല്ല ഇല്ല അത് പെടുകയില്ല കറണ്ട് ബില്ലും വെള്ളത്തിൻ്റെ ബില്ലുമൊക്ക വേറെ വേറെ എക്സ്ട്രാ അടയ്ക്കണം

എന്നാലേ ശരിയാവുള്ളൂ വീട് അടി നിലയും മുകളിൽ കട മുറി ആയിട്ടാണ്